ലൈബ്രറിയല്ലേ ലൈബ്രറിയല്ലേ ആ എനിക്ക് ഒരു ലൈബ്രറിയിൽ ഒരു അക്കൌണ്ട് ചേരണമായിരുന്നു അതിന്റെ മാന ഞാൻ ഇവിടെ ചുങ്കപ്പാറയിൽ നിന്നു തന്നെയാണ് വിളിക്കുന്നത് ആ എനിക്ക് ലൈബ്രറിയിൽ ഏതൊക്കെ ടൈപ്പ് പുസ്തകങ്ങൾ ഉണ്ടെന്നും അറിയണം ഏത് എന്തൊക്കെയാണ് മാനദണ്ഡങ്ങൾ ലൈബ്രറിയിലൊരു അക്കൌണ്ട് എടുക്കണമെങ്കിൽ എന്തൊക്കെ മാനദണ്ഡങ്ങൾ ഉണ്ട് എന്നൊന്നും അറിയണമായിരുന്നു അതിനെ പറ്റി ഒന്നു പറഞ്ഞു തരാമോ ആന്റി ഞാൻ ആ ആ എനിക്ക് കുട്ടികൾക്ക് വായിക്കാൻ പറ്റിയ ബുക്കുകളും പിന്നെ കുറച്ച് നോവൽസും വേണമായിരുന്നു കുട്ടികൾ പതിനാറു വയസ്സുള്ള കുട്ടിയാണ് അവർക്ക് പറ്റിയ ഈ നോവൽ ഹാരി പോട്ടർ പോലെയുള്ള ബുക്കുകൾ പിന്നെ വീൻപീ കിട് അങ്ങനെയൊക്കെയുള്ള ബുക്കുകൾ ഉണ്ടോയെന്നൊന്നറിയണം പിന്നെ എനിക്ക് പറ്റിയ നോവലുകളുണ്ടോയെന്നൊന്നറിയണം മലയാളം നോവലുകളാണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ആ അപ്പോൾ എനിക്ക് അക്കൌണ്ട് എടുക്കണമെങ്കിൽ ആന്റി എന്തൊക്കെയാണ് അതിന്റെ മാനദണ്ഡങ്ങൾ എന്നൊന്നു പറയാമോ ഓക്കെ ഓക്കെ ശരി ഓക്കെ ആ ഓക്കെ ഓക്കെ ഈ മുന്നൂറു രൂപ ഫീസ് എന്നു പറയുന്നത് നമുക്ക് എത്ര നാളത്തേക്കാണത് മെമ്പർഷിപ്പാണ് അല്ലേ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ അപ്പോൾ ഒരു ബുക്ക് നമ്മളിപ്പോൾ എത്ര ബുക്ക് ഒരു സമയം എടുക്കാൻ പറ്റും അതെ ഓക്കെ ഓക്കെ ഓക്കെ റ്റു വീക്ക്സ് ആ അപ്പോ ആ മെമ്പർഷിപ്പ് കൂടാതെ മാസാമാസം വരി സംഖ്യ അങ്ങനെ വല്ലതും അടക്കേണ്ടതുണ്ടോ ഇല്ല ഓക്കെ ഈ ലൈബ്രറിയെ പറ്റി എനിക്ക് കേട്ടറിവേയുള്ളൂ ലൈബ്രറി എവിടെയായിട്ടാണ് അതിന്റെ സ്ഥിതി ചെയ്യുന്നതെന്നൊന്നു പറഞ്ഞു തന്നാൽ നല്ലതായിരുന്നു ഓ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ആന്റി ഞാൻ നാളെ അതു വഴി ഇറങ്ങാം ഇന്നെനിക്കിപ്പോൾ സമയമില്ലാ സന്ധ്യ ആയതു കൊണ്ട് അപ്പോൾ നാളെ ഞാൻ ബുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അതിലെ ഇറങ്ങണമെന്നു വിചാരിക്കുന്നു ആ ആന്റി ഇതിത്രയൊക്കെ വിവരങ്ങൾ എനിക്കു പറഞ്ഞു തന്നതിന് ഒത്തിരി നന്ദിയുണ്ട് ഓക്കെ ആന്റി ഓക്കെ ബൈ